നിങ്ങള് മൊബൈലില് വാര്ത്താഫീഡ്കള് വായിക്കാറുണ്ടോ നിങ്ങള് ഏതെക്കെ ചാനലുകളുടെ വരിക്കാരനാണ് ഞാന് കുറേ കാലമായി മൊബൈലില് പല വാര്ത്താഫീഡ്കള് വായിക്കാറുണ്ട് മൊബൈല് ആണ് വാർത്തകൾ അറിയുന്നതിന് വേണ്ടി ഞാന് കൂടുതലായി ആശ്രയിച്ച് വരുന്നത് പിന്നെ ന്യൂസ് റീഡ് ന്യൂസ് ഹണ്ട് പോലുള്ള ചാനല്കള് ഞാന് ഇതിന് വേണ്ടി പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യും അതിനെക്കുറിച്ചുള്ള വിവരങ്ങള് കൃത്യമായ രീതിയിൽ അതിന് നോട്ടിഫിക്കേഷൻ എത്തുകയും ആ സമയത്ത് അത് വായിച്ച് മനസ്സിലാക്കിയും കൂടുതൽ വിവരങ്ങൾ അറിയാൻ അത് യൂസ് ചെയ്യാന് ശ്രമിക്കാറുണ്ട് എന്നിരുന്നാല്ത്തന്നെയും മനോരമ ദീപിക പോലുള്ള ദിനപത്രങ്ങള് അവയുടെ ചാനലുകളും അതിന് വേണ്ടി ഞാന് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരാറുണ്ട് ഇംഗ്ലീഷിലെ ടൈംസ് ഓഫ് ഇന്ഡ്യ ദി ഹിന്ദു തുടങ്ങിയ പത്രങ്ങളും ഞാന് അതിന് വേണ്ടി മൊബൈലില് ന്യൂസ് ഫീഡിലേക്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെത്തന്നെ മറ്റ് പല ഗവണ്മെൻ ഇന്റെര്നേറ്റ് യൂട്യൂബ് ചാനല്കൾ ഓണ്ലൈന് ഓണ്ലൈന് ചാനല്കകളും ഇതിന് വേണ്ടി ഞാന് ഉപയോഗിക്കുന്നു ഇത് ഉപയോഗിക്കുന്നതില്ത്തന്നെ ഇത്തരം വാരങ്ങൾ ഇത്തരം ചാനല്കകളുടെ വിശ്വാസ്യതയെക്കുറിച്ച് സംശയമുണ്ടെങ്കില്ത്തന്നെ ഇത്രയും ചാനലുകള് ഉപയോഗിക്കാന് നിര്ബന്ധിതനാവുകയാണ് ചെയ്യുന്നത് തുടരെത്തുടരെയുള്ള വാര്ത്താഫീഡില് നമ്മള് അംഗമാവുന്നതോട് കൂടി നമുക്ക് ഉടന്തന്നെ നമ്മുടെ വാര്ത്തകള് നമ്മുടെ കണ്മുമ്പിൽ എത്തുകയും നമുക്ക് അവയെ കുറിച്ച് അറിയാനുള്ള അറിയാനും വസ്തുതാപരമാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങള് നിലനിര്ത്തിക്കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാല് അതിനേക്കുറിച്ച് പെട്ടെന്ന് തന്നെ അറിവ് കിട്ടുന്നതിന് ഇത്തരം സാഹചര്യങ്ങള് നമ്മളെ സഹായിക്കാറുണ്ട് കൂടുതലും പലപ്പോഴും മറുനാടന് മലയാളി പോലെയുള്ള ചില പാവം ചാനല്കകള് അല്ലെങ്കില് ട്വെന്റി ഫോര് ന്യൂസ് പൊലെയുള്ള കാര്യങ്ങള് അങ്ങനത്തെ എല്ലാ വസ്തുതകളും നമുക്ക് ഉടന്തന്നെ ജനങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങള് എത്തിക്കാറുണ്ട് മൊബൈലിന്റെ വരവോട് കൂടിത്തന്നെ വാര്ത്തകള് ഉടന്തന്നെ എല്ലാവരിലേക്കും എത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് സംജാതമായിരിക്കുകയാണ് ചാനല്കകള് സബ്സ്ക്രൈബ് വരിക്കാരാണ് എന്നുള്ള ചോദ്യത്തിന് ഒരു മാതിരിപ്പെട്ട എല്ലാ ചാനല്കളും വരിക്കാരന് ആയിരിക്കുകയാണ് ഞാൻ കാരണം ഓരോ സമയത്തും നമുക്ക് ലഭിക്കുന്ന നോട്ടിഫിക്കേഷന്കൾ അനുസരിച്ച് നമ്മള് വീണ്ടും അതിലേക്ക് മാറുകയും നമ്മള് അതനുസരിച്ച് ഓരോ ഫീള്ഡിലും അംഗമാകും അംഗത്വം എടുക്കുകയും ചെയ്യുന്നു ഇതൊരു നല്ല കാര്യം തന്നെയാണ് എങ്കില്ത്തന്നെയും ഇതിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂട എന്താണ് പറയുന്നത് അവരവര് കൊടുക്കുന്ന ഒരു വാര്ത്ത നമ്മള് വായിക്കുന്നു എന്നേ ഉള്ളൂ അത് സത്യമാണോ അല്ലയോ അത് മൂലം മറ്റൊരാള്ക്ക് അതിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള കാര്യത്തില് നമുക്ക് സംശയം ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നെങ്കില്ത്തന്നെയും ഈയൊരു കാലഘട്ടത്തില് നമുക്ക് വാര്ത്തകള് അറിയുക എന്നുള്ള ഒരു പൗരന്റെ ധര്മ്മം ധര്മ്മന്റെ അവകാശം ഇത്തരം കാര്യങ്ങളിലൂടെ നിര്വഹിക്കപ്പെടുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ചാനല്കകള് ഇത്ര കാര്യങ്ങളില് അവരവരുടെ മാധ്യമധര്മ്മം കൃത്യമായി പാലിക്കുന്നൊണ്ടോ എന്ന് അവരവര് നിരീക്ഷിക്കേണ്ടതാണ് കൂടുതലായും രാഷ്ട്രീയമോ എന്റെ പ്രദേശവുമായി ബന്ധപ്പെട്ടോ കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കൂടുതലായും ഞാന് വായിക്കുന്നത് പിന്നീട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതികമായ വളര്ച്ച സാങ്കേതികമായ പുതിയ കണ്ടുപിടിത്തങ്ങള് അങ്ങനെത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചാനല്കളും ഞാന് വരിക്കാരന് ആയിരിക്കുന്നു ഇതിന്റെയെല്ലാം ഗുണം എന്ന് വെച്ചാല് ആദ്യമേതന്നെ അതിന്റെ വിവരങ്ങള് നമുക്ക് അറിയാന് സാധിക്കും ചെറുതെങ്കിലും എന്തെങ്കിലും ചെറുതായ വിവരങ്ങളെങ്കിലും നമുക്ക് അത് ഉടന്തന്നെ നമ്മളിലേക്ക് എത്തുകയും നമ്മളത് വായിക്കുകയും അങ്ങനെ നമുക്ക് അതിനേക്കുറിച്ച് ഓരോ അറിവുണ്ടാകുവാനും ഇട വരുന്നു വാര്ത്താഫീഡ്കള് ഇതൊക്കെയാണ് എനിക്ക് വാര്ത്താഫീഡ്കള് വായിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ളത് കൂടുതലായും വിവരങ്ങള് ഈയൊരു കാലഘട്ടത്തില് നമുക്കറിയാന് സാധിക്കുന്നു മറുനാടന് മലയാളി പോലുള്ള വാര്ത്താചാനലുകളിലൂടെയാണ് സത്യസന്ധമായ കാര്യങ്ങള് എന്ന് എനിക്ക് കുറേയെങ്കിലും വിശ്വാസമുള്ള ഒരു ചാനൽ ആണത് ഞാന് നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയമോ സാമൂഹികമായ കാര്യങ്ങളെക്കുറിച്ച് അറിയാന് കൂടുതലായും ഞാന് ആശ്രയിക്കുന്നത് ഒന്നെങ്കില് മറുനാടന് അല്ലെങ്കിൽ മനോരമ പോലെയുള്ള ചാനല്കകളെയാണ് കേരളത്തിലെ മാധ്യമരംഗം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി വളര്ച്ച പ്രാപിച്ചിരിക്കുന്നു ആളുകളിലേക്ക് ഏറ്റവും ആദ്യം ഏറ്റവും വേഗത്തില്ത്തന്നെ വാര്ത്തകൾ എത്തിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ സാഹചര്യത്തില് വാര്ത്താഫീഡ്കള് ചാനലുകള് മത്സരിച്ച് അവർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്

ജനങ്ങളിലേക്ക് എത്തിക്കുക അതിന്റെ വിശ്വസ്തതയിലും പൂര്ണ്ണമായ വിവരത്തിലും എത്തുന്നുണ്ടോ എന്ന് പത്രമാധ്യമ രംഗത്തെ ആളുകൾ അതിൽ ശ്രദ്ധിക്കണമെന്ന എനിക്ക് ഒരു അപേക്ഷയുണ്ട് അതുപോലെ ആ രീതിയിലാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് വിശ്വസിച്ച് കൊണ്ട് എന്റെ ഇതിനേക്കുറിച്ചുള്ള ഈ സംസാരം ഞാന് ഇവിടെ അവസാനിപ്പിക്കുന്നു